കളികൾ ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനങ്ങൾ ന നടത്തുന്നുണ്ട് കാരണം ഒരു മനുഷ്യന് ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വികാരത്തെ അടക്കി നിർത്താൻ കഴിയില്ല അദ്ദേഹത്തിനു കളി കളികൾ അദ്ദേഹത്തെ മനസ്സിനു കുറേ സന്തോഷം തരികയും അദ്ദേഹം കളിക്കയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അയാൾ എത്ര എത്ര വലിയ ജോലി ചെയ്താലും അവർക്ക് അതിനിടയിൽ കിട്ടുന്ന ഒരു ഈ നല്ലൊരു സ്വാധീനിക്കാൻ കു കളികളെ സ്വാധീനിക്കാൻ കിട്ടുന്നൊരു സന്തോഷം സന്തോഷമാണ് ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന പല കളികൾ ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്